ആ ഡോക്ടറ് ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ടോ ടോക്കൺ കിട്ടാൻ ചാൻസുണ്ടോ നിർത്താം ഹലോ എൻ്റെ പേര് ജിത്തു എന്നാണ് ആ അല്ല ഡോക്ടറെ ഇന്നലെ രാത്രി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറേ ഭക്ഷണം കഴിച്ചപ്പോൾ വയറിന് ചെറിയ ഒരു ലൂസ് മോഷൻ പോലെ

ആ ആ ഞാനിപ്പോൾ വീട്ടിലാണ് സാറെ ഉള്ളത് മഞ്ഞൾ അത് ആ ആ ആ അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്യാം അല്ലെ സാറ് പറഞ്ഞത് ആ ചെറിയൊരു ആശ്വാസം കിട്ടുമല്ലെ

ആ നാല് മണി ആവുമ്പോൾ ക്ളീനിക്കിൽ വന്നാൽ മതി അല്ലെ അപ്പം ടോക്കണൊന്നും എടുക്കണ്ടേ ഡയറക്റ്റ് ക്ലിനിക്കിൽ അവിടെ നിന്ന് വച്ചാൽ ഓക്കെ ഫ്രീ ബുക്ക് ആ

ആ മഞ്ഞ ആ അതെങ്ങനെയാണ് ഡോക്ടറെ മഞ്ഞൾ ചൂ ഉപ്പ് മിക്സ് കലക്കി കുടിക്കാം അല്ലെ ആ എന്നാൽ അങ്ങനെ ചെയ്യാം ആ എല്ലാവരും ഫംഗ്ഷനായത് കൊണ്ട് അവിടെ കല്ല്യാണമായിപ്പോയി ക ആ കല്ല്യാണത്തിന് പോയപ്പോൾ ഫുഡ്ഡ് കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അനങ്ങ് എല്ലാം വാരി വലിച്ച് കഴിച്ചു പണി കിട്ടിയോ

കുറച്ച് കുറച്ച് ഇത് ആ ഇനി സൂക്ഷിക്കും ഇനി ഇനി സൂക്ഷിക്കണം കു റച്ച് കുറച്ചെ കഴിക്കാൻ പാടുള്ളു ശരി ഡോക്ടറെ

ആ ശരി ഡോക്ടറെ ഞാൻ ഡോക്ടറ് പറഞ്ഞത് പോലെ ചെയ്യാം എന്നിട്ട് കുറവില്ലെങ്കിൽ ക്ളീനിക്കിലേക്ക് ഞാൻ വരാം ശരി ഇല്ല നന്ദി ഡോക്ടർ